ഇന്നത്തെ തലമുറ പലതരത്തിലുള്ള നമ്മളുടെ പണ്ടത്തെ തൊഴിലുകൾ വേണ്ടയെന്നു വച്ച് പുതിയ പുതിയ തൊഴിൽ തേടി പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്നു പറയുന്നത് പണ്ടു കാലത്ത് നിലനിന്നിരുന്ന ആശാരിപ്പണി പ്ലമ്പിങ്ങ് തുന്നൽ കോഴി വളർത്തൽ മൃഗങ്ങളെ പരിപാലിക്കുക അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ ഒരു എന്താ ഒരു അതിനെക്കുറിച്ചൊരു വിദ്യാഭ്യാസരീതി അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിർത്തി കൊടുക്കുകയാണ് അത് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി അതിൽ താല്പര്യം വന്ന് അവർ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻവേണ്ടി ശ്രമിക്കും എന്നാണ് എൻ്റെയൊരു അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പഠനരീതികൂടി ആവിഷ്കരിക്കുക അതായത് ആശാരിപ്പണി പ്ലമ്പിങ്ങ് ഇപ്പോൾ ആശാരിപ്പണിക്കും പ്ലംമ്പിങ്ങിനും തുന്നലിനും ഒക്കെ ആൾക്കാരെ കിട്ടാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് സ്കൂൾ കാലളവിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ ഒപ്പം ഇവയെക്കുറിച്ചും കൂടി ഒരു തൊഴിലതിഷ്ഠിത വിദ്യാഭ്യാസ രീതികൂടി നടപ്പിലാക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആ ഒരു ജോലിയോടുള്ള താല്പര്യം കൂടുകയും അവരെ ആ ഒരു ജോലി തിരഞ്ഞെടുക്കാനുമുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരു മുന്നോട്ടൊരു ആവിർഭാവം നല്ലതായിരിക്കാം എന്നു വിചാരിക്കുന്നു അത് പുതിയ തലമുറയിൽ പെട്ടവർക്ക് ഇത്തരത്തിലുള്ള ജോലി ചെയ്യാനും അവർ നല്ലൊരു ഭാവി അവർക്ക് കിട്ടുവാനും ഇപ്പോഴത്തെ ഈ ഈ തൊഴിലധിഷ്ഠിത ജോലികൾക്ക് തൊഴിലാളികളെ കിട്ടാതെയുള്ള ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ആശാരിപ്പണിക്കോ അല്ലെങ്കിൽ പ്ലംബിങ്ങിനോ തുന്നലിനോ ഒക്കെ ഓരോ ആൾക്കാരെ കിട്ടാത്ത ഒരവസ്ഥയാണുള്ളത് ആ അവസ്ഥയ്ക്ക് മാറ്റം വരണമെ ങ്കിൽ ഓരോരുത്തർക്കും ഓരോ ജോലിയെക്കുറിച്ചുമുള്ള ഒരു അവബോധം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട സ്ത്രീകളും അതോടൊപ്പം തന്നെ പുരുഷന്മാരും ഒക്കെ ഈ ഒരു ജോലിയിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ജോലി നിലവിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാനുള്ള ഒരു ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജോലിക്കാരുടെ അഭാവം നികത്താൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരുപോലെ മുൻകൈ അതുപോലെ വിദ്യാഭ്യാസ രീതിയെന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ മാത്രമല്ല പൊതു ഇടങ്ങളിലും അറിയുന്നവർ മറ്റുള്ളവർക്ക് ഈ ഒരു ജോലി അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് പകർന്നു നൽകുകയാണെങ്കിൽ അതൊരുപാട് ബാക്കിയുള്ളവർക്കും ഗുണം ചെയ്യും ഒരു ജോലി കണ്ടെത്താൻ വേണ്ടിയൊക്കെ അവർക്ക് കൂടുതൽ ഒരു സാഹചര്യം നിലനിർത്തും